ഞാൻ ഡിജിറ്റൽ മാർക്കറ്റ് എന്ന കോഴ്സ് പി എം കെ വി വൈയിലൂടെ പഠിക്കുകയാണ് അപ്പോൾ എനിക്ക് ഇടയ്ക്കു വച്ച് എൻ്റെ ഞാൻ പിള്ളേരെയും കൂടെ പഠിപ്പിക്കുന്നത് കാരണം ഇടയ്ക്കു വച്ച് എൻ്റെ പഠനം നിർത്തി നിർത്തേണ്ടി വന്നു ഇനി എനിക്ക് അത് കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ എനിക്ക് ഇത് വരെ പഠിച്ചതിൻ്റെ പുരോഗതി എൻ്റെ ആ ഞാൻ ഇതുവരെ പഠിച്ചതിന് എന്തു മാത്രം എനിക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റി എന്നൊക്കെ ഒന്ന് പറയാമോ ആ കോഴ്സിൻ്റെ പാതി വഴിയിൽ ഞാൻ അങ്ങനെ അത് ഇനി എനിക്ക് കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം പിള്ളേരെല്ലാം പഠിച്ച് അവരുടെ പരീക്ഷയെല്ലാം കഴിഞ്ഞ് അവർ പോയി ഇപ്പോൾ എനിക്ക് ഞാൻ ഫ്രീ ആണ് അപ്പോൾ എനിക്ക് ഇനി ഇത് പഠിച്ച് വല്ല ജോലിക്കൊക്കെ പോണേല് ഈ കോഴ്സ് കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഞാൻ ഇപ്പോൾ ചെയ്ത ജോലിയുടെ കൂടെ ഈ കോഴ്സ് കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ചു കൂടെ പ്രമോഷനൊക്കെ കിട്ടുമായിരുന്നു അതിനായിരുന്നു എനിക്ക് ഇത് പഠിച്ചാൽ കൊള്ളാമെന്ന് കണ്ടിന്യൂ ചെയ്താൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ ഞാൻ എന്നാ ചെയ്യണം പിന്നെയും ഞാൻ അത് ഒന്നു കൂടെ ഇനി ആദ്യം തൊട്ട് ചെയ്യണോ അതോ ഇതിൻ്റെ ബാക്കിയായിട്ട് ചെയ്താൽ മതിയോ അതൊന്ന് എനിക്ക് ഒന്ന് പറഞ്ഞ് തരണേ അങ്ങയണെങ്കിൽ എനിക്ക് അടുത്ത ആഴ്ച തന്നെ ഞാൻ ഈ പഠനത്തിൻ്റെ ഇതിലേക്ക് തുടങ്ങാമായിരുന്നു